ആ ഇത് ഇത് ദേവമാതാ സ്കൂളിലെ ടീച്ചർ ആണ് സംസാരിക്കുന്നത് ഞങ്ങൾ ഈ ജൂൺ തൊട്ട് പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുവാണല്ലോ അപ്പോൾ ഞങ്ങളുടെ സ്റ്റൂഡൻസിന് ഒരു യൂണിഫോം തയ്പ്പിക്കാൻ വേണ്ടി ആയിരുന്നു

ഈ ജൂണിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിന് ഒരാഴ്ച മുന്നേ എങ്കിലും കുട്ടികൾക്ക് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ ആ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് ഫ്രോക്കും ആൺകുട്ടികൾക്ക് ഷർട്ടും പാൻറ്റും ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഞാൻ കോൾ കട്ട് ചെയ്യുമ്പോഴത്തേന് ഞാൻ അയച്ചിടാം ആ ഞാൻ കളർ എന്ന് പറയുമ്പോൾ ഡാർക്ക് ഗ്രേയും ലൈറ്റ് ഗ്രേ ആണ് ഉദ്ദേശിക്കുന്നത് ഡാർക്ക് ഗ്രേ ഫ്രോക്കും ലൈറ്റ് ഗ്രേ ഷർട്ടും അപ്പോൾ ബോയ്സിന് ലൈറ്റ് ഗ്രേ ഷർട്ടും ഡാർക്ക് ഗ്രേ പാൻറ്റും ആ ബെൽറ്റും അതെ പെൺകുട്ടികൾക്ക് ടൈ ഇല്ല ഷേർട്ടിൻ്റെയും പാൻറ്റിൻ്റെയും ഒപ്പം ടയ്യും അതോടൊപ്പം ബെൽറ്റും പ്രൊവൈഡ് ചെയ്താൽ നന്നായിരിക്കും ബെൽറ്റ് ഞാൻ ഫോട്ടോ അയയ്ക്കാം അതുപോലെ തന്നെ ആ ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്യാം അത് ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ പിന്നെ ഈ ഇരുപത്തെട്ടാം തീയതി ആ ഇരുപത്തെട്ടാം തീയതി മുന്നേ പേരൻറ്റ്സ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കുട്ടികൾ അവരുടെ പേരൻറ്റ്സിൻറെ ഒപ്പം വരുമ്പോൾ അവർക്കത് എടുക്കുമ്പോൾ ഒന്നും കൂടെ സൗകര്യമായിരിക്കും പാരൻറ്റ്സിൻ്റെ കൺമുന്നിൽ നിൽക്കുമ്പോൾ ഒന്ന് കൂടെ സൗകര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി നിങ്ങളുടെ അവിടുന്ന് ആൾക്കാർ വരുമോ ഓക്കേ ആ ഞങ്ങൾ പേരൻറ്റ്സ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻറെ ഒപ്പം തന്നെ ടൈലറിംഗ് വർക്ക് നടത്താമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഒരു പത്ത് മണി തൊട്ട് ഓക്കേ ഓക്കേ ഓക്കേ പിന്നെ ഇവരുടെ ഒപ്പം അതിൻ്റെ സോക്സും കൂടെ പ്രൊവൈഡ് ചെയ്ത് വൈറ്റ് സോക്സ് ആണ് ഉദ്ദേശിക്കുന്നത് ആ പിന്നെ ഞാനതിൻ്റെ ഫോട്ടോ ഡിസൈൻ എല്ലാം അയയ്ക്കാം ഷർട്ട് പിന്നെ കോളർ നിർബന്ധമാണ് കേട്ടോ

ഇല്ലില്ല നിങ്ങൾ തന്നെ ഇഷ്ടമുള്ളൊരു മെറ്റീരിയൽ എടുക്കാം കുറച്ച് കൂടെ ക്വാളിറ്റി കൂടിയതായിരിക്കണം എന്ന് മാത്രം കാരണം കുട്ടികളല്ലേ അവർക്ക് കുറച്ച് നാളും കൂടെ ഇടാനുള്ളതാണ് ആ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ആ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോളൂ ഓക്കേ അപ്പോൾ ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഇരുപത്തെട്ടാം തീയതി വരുമ്പോൾ ഞാൻ തന്നാൽ പോരേ ഓക്കേ താങ്ക് യൂ